ഗോത്ര കലകളായി ഇവിടെ കണ്ടുവരുന്നത് തെയ്യം തിറ കരിങ്കാളിയാണ് പല ഗോത്രങ്ങളിലും പല രീതിയിലാണ് തെയ്യവും തിറയും കരിങ്കാളിയും വരുന്നത് ചില ഇടത്ത് വലിയ വലിയ ആൾക്കാരാവും ചെയ്യുക ചില ഇടത്ത് മെലിഞ്ഞവർ ആവും ചെയ്യുക അതേപോലെ തന്നെ സ കളറിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ രൂപങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും അവരുടെ മുഖത്തുള്ള ഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും കൊട്ടിൽ വ്യത്യാസം ഉണ്ടാവും നൃത്തത്തിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവലുണ്ട് എല്ലാ കൊല്ലവും ഗോത്രങ്ങൾ ഇങ്ങനെ പരിപാടി വയ്ക്കുമ്പോൾ ഇങ്ങനെ കലാരൂപങ്ങൾ കൊണ്ടുവരുകയും അതേപോലെ തന്നെ കലാകാരന്മാർക്ക് അതൊരു അതൊരു പ്രയോജനം ആവുകയും ചെയ്യുന്നു പാരമ്പര്യമായി കലാരൂപങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ടുതന്നെ അവരുടെ ആ ശൈലിയിൽ മാറ്റമില്ലാതെ കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ അമ്പലങ്ങളിൽ ആണിത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എല്ലാ കൊല്ലവും ഒരു സമയം ആകുമ്പോൾ അമ്പലങ്ങളിൽ വഴിപാട് പോലെ ഇതേപോലെ കലാരൂപങ്ങൾ ഓരോരുത്തർ പറയുകയും അതിനനുസരിച്ച് ആളുകൾ ചെയ്യുകയും ചെയ്യുകയാണ് പതിവ് നന്ദി